ഈ ചോദ്യത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെനിയ്ക്കറിയില്ല എങ്കിലും പറയുവാണെങ്കിൽ കർഷകരവരുടെ വിളകൾ കൃഷി ചെയ്ത് അത് വിളവെടുക്കാറാവുന്ന സമയത്ത് മറ്റു സ്ഥലങ്ങളിലെത്തിയ്ക്കാൻ വേണ്ടീട്ട് ഗതാഗതത്തിൻ്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിയ്ക്കുന്നുണ്ടെന്നെനിയ്ക്ക് തോന്നുന്നുണ്ട് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ജലസേവന സവ്കര്യങ്ങൾക്കോക്കെ ബുദ്ധിമുട്ടനുഭവിയ്ക്കുന്നവരുണ്ടാരിക്കും അങ്ങനുള്ള കാര്യങ്ങളെ പറ്റിയെ എനിയ്ക്കറിയത്തുള്ളു